വിദ്യാഭ്യാസ ലോണിനെക്കുറിച്ചും അത് എടുത്ത ഒരാളെക്കുറിച്ചും അറിയാവുന്നതു തന്നെയാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ എജുക്കേഷണൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ പഠനത്തിൻ്റെ ആവശ്യത്തിനു തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നാലുവർഷത്തെ കോഴ്സ് എൻജിനീയറിങ്ങ് കോഴ്സ് പഠിക്കാൻ വേണ്ടീട്ട് തന്നെയായിരുന്നു അവര് മൂന്നുലക്ഷം രൂപ ലോൺ ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ബാങ്കിൽ നിന്ന് പക്ഷെ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലുവർഷത്തെ പഠനത്തിനുശേഷം പെട്ടെന്ന് തന്നെ ജോലി കിട്ടണമെന്നില്ല പക്ഷെ നാലുവർഷത്തിൻ്റെ പഠനത്തിനുശേഷം ആറുമാസങ്ങൾക്ക് ശേഷം തന്നെ നമ്മൾ നമ്മൾ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ തുടങ്ങേണ്ടിവരും അതുപോലെതന്നെ അതിൻ്റെ കൂടെ പലിശയും ഉണ്ടാകും യഥാർത്ഥത്തിൽ എജുക്കേഷൻ ലോണെന്ന് പറയുന്നത് ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മള് അത് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ചെയ്യണം ഈ നാല് വർഷം അല്ലെങ്കിൽ നമ്മളുടെ പഠന വർഷത്തിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളവർ മാത്രം അത് എടുക്കാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം വേറെ ഏതെങ്കിലും പണിക്ക് പോയിട്ട് നമുക്ക് അത് അടയ്ക്കേണ്ട അവസ്ഥ വരും